ഞാനാദ്യം വാങ്ങിച്ചത് ഒരു ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് ഇല്ലായിരുന്നു കഴിഞ്ഞ് ഫ്രിഡ്ജ് വന്നപ്പോള് അതിൽ എന്ത് ഉപകാരപ്രദമായിരുന്നുവെന്ന് ഞാന് ഓര്ക്കുകയാണ് ഫ്രിഡ്ജിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ്ഡിൽ മിച്ചം വരുന്നതെല്ലാം നമുക്ക് ഫ്രിഡ്ജില് വെച്ച് പിറ്റേ ദിവസത്തേന് സൂക്ഷിച്ച് വെച്ച് സ് ഉപയോഗിക്കാന് നമുക്ക് സാധിക്കും അതിപ്പോൾ തോരനായാലും പാൽ ആണെങ്കിലും മുട്ടയാണെങ്കിലും ഒക്കെ ഫ്രിഡ്ജില് വെച്ചാല് നമുക്ക് അത് അഴുക്കാകാതെ നമുക്ക് സൂക്ഷിച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കാവുന്ന സാധനമാണ് നമുക്ക് കറിയൊക്കെ വെയ്ക്കുന്നത് മിച്ചം ഉണ്ടെന്ന് വരികിൽ നമുക്ക് എടുത്തു വെച്ചാല് പിറ്റേ ദിവസം അത് ഒരു കേടും ഇല്ലാതെ സൂക്ഷിക്കാം അത് നല്ലതാണ് ഐസ് ക്രീം ഉണ്ടാക്കി കുട്ടികള്ക്ക് കൊടുക്കാനും ഫ്രിഡ്ജ് വളരെ ഉപകാരപ്രദമാണ് ഇപ്പോഴുള്ള കുട്ടികള് ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ അത് ഐസ് ക്രീമും ഐസിന്റെയൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ അതൊക്കെ ഫ്രിഡ്ജ് മുഖേന നമുക്ക് ഫ്രിഡ്ജ് ഐസ് ഉണ്ടാക്കി പിള്ളേര്ക്ക് ആ സാധനങ്ങള് ഉണ്ടാക്കി കൊടുക്കാന് നമ്മൾ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നല്ല ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഞാന് കാണുന്നു നേരത്തെ എനിക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തതു കൊണ്ടായിരിക്കാം ഇപ്പോള് എനിക്ക് അത് വളരെ ഉപകാരപ്രദമായ ഒരു ഇതായിട്ട് ഉപകരണമായിട്ട് ഞാന് മുന്നില് കാണുന്നു